കൃഷി മത്സ്യബന്ധനം മൃഗപാലനം ക്ഷീര ഉത്പാദനം കൃഷി ഇത് എല്ലാം സാങ്കേതികവിദ്യക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പല സമയങ്ങളില് പല രീതിയിൽ സാങ്കേതികവിദ്യ ഒരുപാട് ഒരു മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട് കൃഷിയുടെ കാര്യങ്ങളിൽ പറയുക ആണെങ്കിൽ സാങ്കേതികവിദ്യ വഴി ഇൻ്റർനെറ്റ് മുഖാന്തരം പല കാര്യങ്ങൾക്കൊക്കെ പഠിക്കുവാനും പുതുതായി രീതികളെ പറ്റി അറിവ് നേടുവാനും അവ ഫലപ്രദമായി ഉപയോഗിക്കുവാനും ഉള്ള ഒരു സഹായം നേടി പുതിയ തരം വിത്തുകൾ ലഭിക്കുവാൻ പുതിയ ഫെർട്ടിലൈസേഴ്സ് ലഭിക്കുവാനും അതുപോലെ തന്നെ ഉപകരണങ്ങൾ കണ്ടെത്തുവാനും ഇതു സഹായിച്ചു ഒപ്പം തന്നെ കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള തൊഴിലാളികളെ ലഭിക്കുവാനും സാങ്കേതികവിദ്യ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് വാട്സ്ആപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ സാങ്കേതികവിദ്യയിലൂടെ ഇത് പലതും നടന്നിട്ടുണ്ട് യൂട്യൂബ് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് പല കാര്യങ്ങളെയും കാണിക്കുവാനും അതിൻ്റെ പരസ്പരമായ ഉപയോഗത്തെ കാണിച്ച് നൽകുവാനും ഒരുപാട് സഹായിച്ചു അതേപോലെ മത്സ്യബന്ധനം പോലുള്ള മത്സ്യബന്ധനത്തിന് സഹായിക്കുന്നത് കാലാവസ്ഥയെ പറ്റിയിട്ടുള്ള അറിവായിരിക്കും അതുപോലെ തന്നെ മത്സ്യങ്ങൾ അധികമായി ലഭിക്കുന്ന ഇടങ്ങൾ എവിടെയെന്ന് അറിയിക്കുവാനുമുള്ള ഒരു സാങ്കേതികവിദ്യ ഒരുപാട് സഹായിച്ചു മൃഗപരിപാലനം എന്ന് പറയുമ്പോൾ മൃഗങ്ങൾക്ക് വരുന്ന രോഗങ്ങൾ അതിനുള്ള ശുശ്രൂഷ അതുപോലെ മൃഗങ്ങൾ നേരിടാവുന്ന പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരങ്ങൾ എന്നിവ ഈ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ അറിയുവാൻ കഴിഞ്ഞു അതുപോലെത്തന്നെ അവയ്ക്ക് വേണ്ട വാക്സിനേഷൻ ഭക്ഷണ ക്രമീകരണങ്ങൾ ശുചീകരണ ക്രമീകരണങ്ങൾ മുതലായ പല കാര്യങ്ങളേയും വരെ അറിയുന്നത് സാങ്കേതികവിദ്യ വഴി തന്നെയാണ് ക്ഷീര ഉത്പാദന ക്ഷീര ഉത്പാദനത്തിൻ്റെ നമ്മൾ എത്തിച്ച് നൽകുക അവയ്ക്ക് വേണ്ട പരിപാലനം അത് അതുപോലെത്തന്നെ ക്ഷീര ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും ഉള്ള ഒരു സംവിധാനം എന്നുള്ള സാങ്കേതികവിദ്യയിലൂടെ ലഭിച്ചു ഇപ്പോൾ എല്ലാ കാര്യങ്ങളും സാങ്കേതികവിദ്യ മൂലം സുഗമമായി തന്നെ നടക്കുന്നു ഏതൊരു പ്രശ്നത്തിനും പരിഹാരം സാങ്കേതികവിദ്യയിലൂടെ കണ്ടെത്താൻ കഴിയുന്നു നമുക്കുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്ന് നൽകാനും അത് ഫലപ്രദമായി ഉപയോഗിക്കുവാനും ഉള്ള ഒരു സഹായങ്ങളുടെ സാങ്കേതികവിദ്യയുടെ ഉന്നമനത്തിലൂടെ നടപ്പായിട്ടുണ്ട്